നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിയമപരമായ പ്രശ്നങ്ങളും അതുപോലെത്തന്നെ ഭൂമി തർക്കങ്ങളും ബാക്കിയുള്ള വായ്പകൾ കുടുംബകാര്യങ്ങൾ വേതനം അതുപോലെയുള്ള തുടങ്ങിയ ഓരോ കാര്യങ്ങളും എന്തെങ്കിലും പ്രശ്നം അതിനിടയിൽ വന്നാൽ നമ്മൾ ആദ്യം സമീപിക്കുന്നത് അവിടെയുള്ള വില്ലേജ് ഓഫീസറെയോ അല്ലെങ്കിൽ ആ സ് സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനേയോ ആണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും അതുപോലെതന്നെ റോഡ് വികസനം അതുപോലെ വികസനങ്ങൾക്കായ ഉള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ മാത്രമല്ല വികസനങ്ങൾക്കുള്ള കാര്യങ്ങളായാലും നമ്മൾ പഞ്ചായത്തിലേക്കാണ് പഞ്ചായത്ത് ഓഫീസറെയാണ് ആദ്യം നമ്മൾ തിരഞ്ഞ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഈ ഇവരിൽ നിന്നും ഇവരുടെ കയ്യിൽ പ്രശ്നം നിൽക്കാത്തിടത്തോളം ബാക്കി നമ്മൾ പോലീസുകാർ പോലീസ് കോൺസ്റ്റബിളുകളുടെ കൈയ്യിലാണ് ഏൽപ്പിക്കുന്നത് അപ്പോൾ അവർ കാര്യമായ നിയമനടപളി നി നിയമനടപടികൾ എടുക്കുകയും അപ്പോൾ അതിനുള്ള ഉചിതമായ തീരുമാനങ്ങൾ നടത്തി നടത്തുകയും ചെയ്യും അപ്പോൾ ആ അ തെറ്റുചെയ്ത ഒരു ആ ആളുടെ കാര്യമാണെങ്കിൽ പോലീസുകാരുടെ കൈയ്യിൽ നിന്നില്ലെങ്കിലും അതു കോടതിയിലേക്കു സമർപ്പിക്കുകയും അവിടെ നിയമപരമായ കാര്യങ്ങൾ നടപടി എടുക്കുകയും അർഹത അർഹതപ്പെട്ടവർക്ക് ശിക്ഷ നൽകുകയും അല്ലെങ്കിൽ ഓരോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടു കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും കോടതി പോലീസ് പഞ്ചായത്ത് ഓഫീസർ വില്ലേജ് ഓഫീസർ ഇതുപോലെയുള്ള നിയമം നടപ്പിലാക്കുന്ന ഓരോ ഓഫീസറുടെ കയ്യിലുമാണ് നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങളും കുടുംബകാര്യങ്ങളും സമർപ്പിക്കുന്നത് കുടുംബകാര്യങ്ങൾ കുടുംബകാര്യങ്ങളെന്നു പറയുമ്പോൾ കുടുംബകാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തുപറയേണ്ടതാണ് കാരണം കുടുംബകാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പുറത്തോട്ടു പോകൂ അല്ലെങ്കിൽ കുടുംബക്കാരുമായിട്ട് ചർച്ചചെയ്ത് എന്നെങ്കിലും ഒത്തുതീർപ്പോ അല്ലെങ്കിൽ വാക്കുതർ വാക്കുവഴ വാക്കു തർക്കങ്ങളോ അല്ലെങ്കിലോരോ കാര്യങ്ങൾ നടപടിയാക്കുന്നതോ അതോ കുടുംബകാര്യങ്ങൾ എന്നുപറഞ്ഞാൽ പ്രത്യേകം പറയേണ്ട കാര്യമാണ് അപ്പോൾ അതു ബാക്കിയുള്ളവര്ക്ക് ആർക്കും വിട്ടുകൊടുക്കാനുള്ളതല്ല അതുപോലെത്തന്നെ ബാക്കി തർക്കങ്ങളും ഭൂമി സംബന്ധമായ കാര്യങ്ങളും എല്ലാം ഒരു വില്ലേജ് ഓഫീസറെ അറിയിക്കുകയും മറ്റു തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസുകാരെ അറിയിക്കുകയും കോടതിയിൽ പോകുകയും നടപടിയെടുക്കുകയും ചെയ്യും ഇതുകൂടാതെതന്നെ വരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മളാൽ കഴിയുന്നത് നമ്മളാൽത്തന്നെ തീർക്കുകയും ചെയ്യും